ഹലോ ആ ഡോക്ടർ അല്ലേ വയർ വേദനയായിട്ട് വിളിച്ചതാണേ ഇപ്പോൾ മൂന്നാല് ദിവസമായി ആ പാരസെറ്റാമോൾ കഴിച്ചിരുന്നു ഇപ്പോൾ വേദനയ്ക്ക് മാറ്റമൊന്നുമില്ല

ആ വെള്ളം കുടിക്കാറുണ്ട് എന്താണ് അറിയില്ല ആ ഓക്കേ ഇൽ ഇല്ല ഡോകറ്ററേ പുറത്തുനിന്ന് ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല ആ അതെ വീട്ടിൽ തന്നെ ഇല്ലല്ലോ ഡോക്ടറേ ചെമ്മീൻ ഒന്നും കഴിച്ചിട്ടില്ലല്ലോ ഇല്ലില്ല

ആ മൂത്രം ഒഴിക്കാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് വേദന ഉണ്ട്

ഒരു ദിവസം മൂന്നാല് പ്രാവശ്യം പോകും

ആ ഡോക്ടർ എപ്പോഴാണ് ഉണ്ടാവുക ഹാ ഓക്കേ ആ ആ ആ യൂറിന് ഇല്ല കളർ മാറ്റമൊന്നുമില്ല ഇല്ല ആ ഇല്ല തലവേദന ഒന്നുമില്ല വയർ വേദന മാത്രം പിന്നെ മൂത്രം ഒഴിക്കാനും ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ആ ഓക്കേ ആ ആ